ഞങ്ങളുടെ ആരോഗ്യ സേവനങ്ങളും പട്ടണത്തിലെ ആരോഗ്യ സേവനവും വളരെ വ്യത്യാസം തന്നെ ആണ് എന്നു വച്ചാൽ ഒരുപാട് ഫെസിലിറ്റീസ് കൂടുതലാണ് പട്ടണങ്ങളിലെ ഏഹ് ആരോഗ്യ സേവനങ്ങൾ ഈ സാധാ പ്രദേശങ്ങളിൽ നിന്നും പരുക്കേൽക്കുന്നവരെയും ഗുരുതരമായി വരുന്നവരെയും സർജറികളും ഇതൊക്കെ പട്ടണത്തിലേയ്ക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് കാരണം മതിയായ ഫെസിലിറ്റീസ് നമ്മുടെ പ്രദേശങ്ങളിലെ സൗകര്യ സ്ഥലങ്ങളിൽ ആരോഗ്യ സേവനങ്ങളിൽ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പട്ടണങ്ങളെ ആശ്രയിക്കുന്നത് ഇന്ന് ഒരുപാട് പൈസ ചിലവാക്കുന്നതുകൊണ്ടാണ് പട്ടണങ്ങളിലെ ആരോഗ്യ സേവനങ്ങൾ ഇത്രയും ഫെസിലിറ്റീസ് വരാൻ കാരണം നമ്മുടെ നാടുകളിൽ നമ്മുടെ ഭരണാധികൾ പണം സ്പെന്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യ സേവനങ്ങൾ വളരെ വളരെ അധികം മോശമായിത്തന്നെ പറയാം എന്നാലും ചില ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് അവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നുള്ളൂ പക്ഷേ പട്ടണത്തിന്റെ കാര്യങ്ങൾ മേജർ സർജറികളും അങ്ങനെ വലിയ വലിയ സർജറികൾ എല്ലാം അവിടെ തന്നെ പോകേണ്ടി വരുന്നു ഇന്നത്തെ ജനങ്ങൾക്ക് പട്ടണങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു കാരണം ഇത് രണ്ടും കംപയർ ചെയ്യുമ്പോൾ പട്ടണത്തിന് ആരോഗ്യ സേവനം തന്നെയാണ് ഏറ്റവും മികച്ചത്